നമ്മുടെ ഗ്രാമത്തിലെ ഓരോ മത വിഭാഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള ചടങ്ങുകളാണ് നടത്തുന്നത് ഹിന്ദുക്കൾക്കാണെങ്കിൽ മരിച്ച് ചില മതക്കാർ ചില ഹിന്ദു വിഭാഗത്തിലെ ആൾക്കാരെന്ത് ചെയ്യുന്നുവെച്ചാൽ ശവം ദഹിപ്പിക്കുന്നു ചിലർ അടക്കം ചെയ്യുന്നു കുഴിയെടുത്ത് എന്നിട്ട് പിന്നെ ദഹിപ്പിക്കുന്നവർ ഏഴാം ദിവസം അസ്തി എടുത്തിട്ട് അതു വെച്ച് പതിനാറ് വരെ വിളക്ക് കത്തിച്ചിട്ട് പതിനാറാം ദിവസം കടലിൽ കൊണ്ടുപോയി ഒഴുക്കുന്നൊരു ചടങ്ങാണ് നടക്കുന്നത് അടക്കം ആണെങ്കിൽ അസ്തി എടുപ്പ് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നുമില്ല ഇതുപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ പിന്നെ മരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോയി അടക്കുകയാണ് ചെയ്യുന്നത് അടക്കിയിട്ട് അവിടെയും പ്രാർത്ഥന പ്രാർത്ഥന ഉണ്ട് എല്ലാവരും ബന്ധുക്കൾ എല്ലാവരും കൂടി അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മുസ്ലീങ്ങൾക്കാണെങ്കിൽ മരിച്ച വ്യക്തിയെ കുളിപ്പിച്ച് അവരുടെ ആ പെട്ടിയിലേയ്ക്ക് ആക്കി ആകാശം കാണാതെയാണ് പള്ളിയിലേയ്ക്ക് കൊണ്ടു പോകുന്നത് അവരെ മത വിശ്വാസ പ്രകാരം മയ്യം കൊണ്ടു പോകുമ്പോൾ ആരും കരയാൻ പാടില്ലന്നാണ് പറയുന്നത് കരഞ്ഞാലവർക്ക് മോക്ഷം കിട്ടില്ലന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് അവരെ സ്ത്രീകളായാലും ആരും കരയാതെ നാൽപ്പത് ദിവസം എന്തെയ്യും അവരെ ഇങ്ങനെ വെളിയിൽ ഇറക്കാതെ ഒരു മുറിക്കകത്ത് തന്നെ ഭാര്യയയായാലും മക്കളായാലും ഇരിക്കും അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കയാണ് ചെയ്യുന്നത് മുസ്ലീങ്ങൾ എന്നിട്ട് പള്ളിയിൽ കൊണ്ടുപോയി അടക്കിയിട്ട് വന്നിട്ട് അവർ കഞ്ഞി കൊടുക്കുന്നതാണ് ഹിന്ദു വിഭാഗത്തിൽ ശവം എടുത്ത് കഴിഞ്ഞിട്ട് കഞ്ഞിയും പയറും വെച്ച് വന്നവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് എല്ലാവരും വന്നവരെല്ലാവരും കഞ്ഞി കുടിച്ചിട്ട് പോകണം എന്നാണ് പറയുന്നത് പോയിട്ട് പിന്നെ മരണ വീട്ടിൽ ബന്ധുക്കൾ വേണ്ടപ്പെട്ടവർ മാത്രമേ അവിടെ നിൽക്കുകയും ബാക്കിയുള്ളവർ വന്നും പോയുമൊക്കെ നിൽക്കുകയാണ് ചെയ്യാറ് പിന്നെ പതിനാറ് ഹിന്ദുക്കൾ ആണെങ്കിൽ പതിനാറ് ദിവസം വരെയാണ് അവർ ബലി ബലികർമ്മങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് ബലി പതിനാറ് ദിവസം വരെ ബലി ഇട്ടിട്ട് പിന്നെ വർഷത്തിൽ ഒരു ബലി ഇട്ടാണ് അവർ ആണ്ട് നടത്തി ആണ്ട് ചടങ്ങ് നടത്തുന്നത് അതും ഇതാണ് ഹിന്ദുക്കളുടെ ആചാരം